ഞങ്ങളുടെ പ്രദേശത്തും സമീപത്തുമായി ആശുപത്രികളും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളും അവയെല്ലാം തന്നെ എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഉള്ളത് അതുപോലെത്തന്നെ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ഒരു ആശുപത്രി ഉള്ളത് അതായത് നടന്ന് ചെല്ലാവുന്നത്ര ദൂരത്തിലാണ് അശുപത്രി ഉള്ളത് സാധാരണ വീടിന് അടുത്ത് ആർക്ക് വയ്യാതായാലും സാധാരണ നമ്മൾ ഓടി എത്തുന്നതും ഈ അടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെയാണ് അതേപോലെത്തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കേസുകളൊന്നും ആ ആശുപത്രിയിൽ എടുക്കാറില്ല അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ആശുപത്രിയിൽ ഇല്ല അങ്ങനെ വരുമ്പോൾ അവിടുത്തെ തന്നെ ആംബുലൻസിൽ മറ്റു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറാണ് ചെയ്യാറ് പിന്നെ അവിടെ നിന്നൊരു അഞ്ചു കിലോമീറ്റർ ദൂരത്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുള്ളത് അടുത്ത് തന്നെയാണ് എല്ലാം അടുത്ത് തന്നെ കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ കുറച്ചുകൂടി ഫെസിലിറ്റീസ് അവിടെ ലഭ്യമാണ് എന്നിരുന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയതിനാൽ അവിടെ പൈസ വളരെ കൂടുതൽ ആയിരിക്കും സാധരണക്കാരായ ആൾക്കാർക്ക് അവിടെ അത്ര രൂപ താങ്ങാൻ പറ്റുന്ന ചിലവല്ല പിന്നെ സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചുകൂടി ദൂരത്താണ് അതുകൊണ്ട് തന്നെ അധിക ചിലവ് താങ്ങാൻ കഴിയാത്ത സാധാരണക്കാർ അവിടോട്ടാണ് ഓടിയെത്തുന്നത് പിന്നെ അടുത്ത് തന്നെയാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വാക്സിനേഷൻ നടത്താനാണ് കൂടുതലായി പോകാറുള്ളത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെ ആശാ പ്രവർത്തക്കർ കൃത്യ സമയത്ത് നടത്തേണ്ടേ വാക്സിനേഷനെപ്പറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ തന്നെ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തി അവിടെ എടുക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യാറുണ്ട് അതേപോലെതന്നെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പും മറ്റും അതിനെക്കുറിച്ചും എല്ലാം വന്ന് ക്ലാസ്സ് എടുക്കാറും നമ്മൾ സാധാരണയായിട്ടും പോകുന്നത് ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണ് പിന്നെ അതുപോലെതന്നെ കോവിഡ് ടൈമിൽ വാക്സിനേഷൻ സ്വീകരിച്ചതും വീടിന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നായിരുന്നു പിന്നെ അത്യാവിശ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ കൂടുതലും അടുത്തുള്ള ആശുപത്രികളെ ആശ്രയിക്കാറുള്ളത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്കാളും കഴിവതും പോകാറുള്ളത് ദൂരമാണെങ്കിലും പൈസയുടെ കാര്യം ഓർക്കുമ്പോൾ സാധാരണ എല്ലാവരും സർക്കാർ ആശുപത്രിയിലോട്ടാണ് പോവുന്നത് പിന്നെ സർക്കാർ ആശുപത്രി പോലുള്ള കൂടുതലും ജനങ്ങൾക്ക് അതൊരു സഹായം തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്ത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റല് ഇല്ലാത്തൊരു ശ്ശെ സൊറി സർക്കാർ ആശുപത്രികൾ ഇല്ലാത്തതിൻ്റെയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കഴിവതും എല്ലാവരും ദൂരം നോക്കാതെ പോവാറും ഉണ്ട് അതുപോലെ തന്നെ അടുത്ത് തന്നെയാണ് സർക്കാർ ആശുപത്രി ശ്ശെ സർക്കാർ ശ്ശെ